ഞാനിപ്പോ പൂച്ചകളേയും മൃഗങ്ങളേയും ഒന്നും വളർത്തുന്നില്ല പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഗൾഫിൽ പൂച്ചകളൊക്കെ ഉണ്ട് ആ പൂച്ചകൾ വളരെ നല്ല രീതിയിലാണ് അവരെ പെരുമാറ്റം ഇങ്ങനെ കൂടെ വരും ഭക്ഷണം കൊടുക്കും നല്ല രീതിയിൽ നമ്മൾ അവരെ തൊട്ട് തൊട്ടു തലോടി നല്ല രീതിയിലാണ് പേര് ഒന്നും ഇട്ടിട്ടില്ല എന്നാലും നല്ല നന്ദിയുള്ള മൃഗങ്ങളാണ് പൂച്ചകൾ

നല്ല രീതിയില് തന്നെയാണ് വലിയ സ്നേഹമുള്ള മൃഗങ്ങളാണ് ഭക്ഷണമൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഇവിടെ വളര്ത്തു മൃഗങ്ങളൊന്നും കാര്യമായിട്ട് ഇല്ല